ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഫാഷൻ ഡിസൈന് അഡ്വെർടൈസ്മെൻ്റ് സിനിമ എന്നുള്ള മേഖലകൾ വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലകൾ തന്നെയാണ് തൊഴിലധിഷ്ഠിതവും എല്ലാ എല്ലാ മേഖലകളും നല്ല രീതിയിലുള്ള തൊഴിലുകൾ പ്രധാനം ചെയ്യുന്നവയാണ് ഈ ഫാഷൻ്റെ മേഖലകളിൽ തന്നെയാണേലും നമ്മൾക്ക് അറിയാം ഇൻ്റർനാഷണൽ പരമായിട്ട് ഒത്തിരി ഒത്തിരി സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഈ ഫാഷനെന്നു പറയുന്ന മേഖല ഈ ഫാഷൻ മേഖലയിൽ അനേകം ആൾക്കാർക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അനേകം തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു ഈ ഫാഷനെന്ന ഈ ഒരു മേഖലയിലൂടെ ഈ മേഖലയിലൂടെ അനേകം സ്ത്രീകൾ വ്യത്യസ്ത തലങ്ങളിലുള്ള സ്ത്രീകൾ ജീവിതത്തിൻ്റെ ഉയർച്ചയിലെത്തി എത്തുന്നത് വരെ നമ്മൾ ദിനം പ്രതി കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊഴത്തെ ഈ കാലത്ത് ഫാഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ് ഒരാളുടെ മുൻപിൽ നന്നായി പ്രെസൻ്റ് ചെയ്യുക എന്നതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം ആ ആഗ്രഹം വരുമ്പോൾ എങ്ങനെ വ്യത്യസ്തമായി നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് ഒന്ന് പ്രെസെൻ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ ഫാഷനെന്ന് പറയുന്ന ഒരു ഒരു ഇത് ഉടലെടുക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഫാഷൻ ഫാഷനെന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ വ്യത്യസ്തങ്ങളായ പല പല ഫാഷൻ ടെക്നിക്കുകളും നമ്മളിപ്പോൾ കാണാൻ സാധിക്കാറുണ്ട് ഈ ഫാഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാഷൻ്റെ കേസിൽ തുണി ഒരു തുണി തുണിയിൽത്തന്നെ വ്യത്യസ്തമായ ഫാഷനുകളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞുവെന്നു തന്നെ മാത്രം തു തുണിയുടെ കേസിൽ ഒരു ഫാഷൻ പല പല ഫാഷനുകളുണ്ട് അതേ സമയം കോസ്മെറ്റിക്സ് നമ്മുടെ കോസ്മെറ്റിക്സ് തന്നെ നമ്മളെ പല രീതിയിലാക്കുന്ന തരത്തിലുള്ള മീൻസ് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് തന്നെ മാറ്റുന്ന തരത്തിലുള്ള കോസ്മെറ്റിക്സ് ആ കോസ്മെറ്റിക്സ് ഒരാൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ആ ആളുടെ വ്യക്തിത്വം വ്യക്തിത്വം മീൻസ് എന്നാ പറയുന്നേ വ്യക്തി വ്യക്തിയുടെ ആ ഒരു രൂപം തന്നെ മാറുന്നു അതുമൊരു ഫാഷൻ എന്നുതന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് നമ്മുടെ മുടി മുടിയുടെ സ്റ്റൈല് മുടിയുടെ സ്റ്റൈല് മാറുന്നു അതിനും നമ്മളതിൻ്റെ ഫാഷൻ എന്നു തന്നെയാണ് പറയാറുള്ളത് പിന്നെ പിന്നെ എന്ന് പറയുവാണെങ്കിൽ ഡിസൈനിങ് ഡിസൈനിങ്ന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വളരെ എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഒരു മേഖല തന്നെയാണ് ഈ ഡിസൈനിങ് പഠിക്കുന്ന ഒട്ടനവധി വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് അവരീ പഠിക്കുന്നതിനൊപ്പം അവർക്ക് പഠി പഠി പഠിക്കുന്ന ആ ഒരു അടിസ്ഥാനം കിട്ടിയാൽ ഈ പഠിക്കുന്ന വിദ്യർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടേതായ സ്വന്തം ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യുന്നു അവിടാണവരുടെ വിജയം വരുന്നത് അവർ പഠിക്കുന്ന അടിസ്ഥാനപ്പെടുത്തി അവരുടെ ബുദ്ധിയിലുദിക്കുന്ന പലതരം ഡിസൈനുകൾ അവരു തന്നെ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഫാഷൻ ഡിസൈനിങ്ങും എന്നുള്ള ഈ മേഖലകൾ കൂടുതൽ എന്താ പറയാ എല്ലാവർക്കും ഒരു ഇൻ്ററെസ്റ്റിങ് ആയിട്ടുള്ള മേഖലകളാണ് അതുകൊണ്ടു തന്നെ അതിലൊത്തിരി കഴിവ് അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും നമുക്ക് ഒരു ഒരു ഒരു കാര്യത്തിനോട് നമുക്കൊരു താല്പര്യം തോന്നുവാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് നമ്മുടെ മനസിൽത്തന്നെ അത് നമുക്ക് തന്നെ ഫോം ചെയ്തെടുക്കുന്ന കാര്യം തന്നെയാണല്ലോ അതുപോലാണ് ഈ ഫാഷൻ ഡിസൈനിങ്ങും കാര്യങ്ങളും പിന്നെ അഡ്വെർടൈസ്മെൻ്റിൻ്റെ കേസ് നമ്മൾ ഈ അഡ്വെർടൈസ്മെൻ്റിലും നമുക്കറിയാമല്ലോ എന്തെല്ലാം പലതരത്തിലുള്ള അഡ്വെർടൈസ്മെൻ്റ്സ് ആണ് ഇപ്പോൾ നമുക്കുള്ളത് ഈ അഡ്വെർടൈസ്മെൻ്റ്സിൻ്റെ ഇൻഫ്ലൂവൻസ് അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് നമുക്ക് ഈ മാർക്കെറ്റിൽ എത്തിക്കണമെങ്കിൽ ഈ അഡ്വെർടൈസ്മെൻ്റിൻ്റെ റോള് വളരെ വലുതാണ് കാരണം നമ്മൾ ഒരു പ്രൊഡക്ടിനെ കുറിച്ച് ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങുമ്പം അതിനു ചേരുന്ന അതായത് ക്യാ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു അഡ്വെർടൈസ്മെൻ്റ് അതിനു ക്യാച്ചിങ് ആയിട്ട് മീൻസ് നമുക്ക് ഒരു ഒരു ഒരാൾടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു അഡ്വെർടൈസ്മെൻ്റ് എറക്കുവാണെങ്കിൽ ആ പ്രൊഡക്ട് പെട്ടന്ന് ക്യാച്ച് ചെയ്യും എല്ലാവരും അതെ സമയം ഒരു അഡ്വെർടൈസ്മെൻ്റ് അത്ര അങ്ങോട്ട് ക്ലിക്ക് ആകുന്നില്ലാത്തൊരു അഡ്വെർടൈസ്മെൻ്റാണ് നമ്മളിറക്കുന്നത് എങ്കിൽ അതിന് ആ ഒരു പ്രൊഡക്ടിന് അധികം റണ്ണിങ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അതുപോലെ തന്നെ സിനിമ സിനിമയും ഒരു ഒരു ഇപ്പോൾത്തന്നെ ഒരു വലിയ മേഖല അതായത് ഇപ്പൊൾത്തന്നെ നമ്മുടെ യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ യുവജനങ്ങൾടിടയിൽ നമ്മൾ കണ്ടു വരുന്നൊരു കാര്യമാണ് വലിയ വലിയ ഡിഗ്രികളും അതായത് ഒത്തിരി ഗ്രാജുവേറ്റ് ആണേൽപ്പോലും കിട്ടിയ നല്ല ജോലി അതായത് ഒരു ഐ റ്റി ഫീൽഡ് അല്ലെങ്കിൽ നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ പോലും ബാങ്കിങ് മേഖല അങ്ങനെ നല്ലൊരു ജോലി ഉണ്ടെങ്കിൽപ്പോലും ഈ സിനിമക്ക് വേണ്ടി ആ ജോലി ഉപേക്ഷിച്ച് സിനിമക്ക് വേണ്ടി നടക്കുന്ന അനേകം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ അതൊക്കെ അവരുടെ ജീവിതത്തിൽ സക്സസ് ആയിട്ടേ ഉള്ളൂ ഇത് നമ്മൾ കണ്ട ഓരോ ഉദാഹരങ്ങൾ വെച്ച് നമുക്കറിയാൻ സാധിക്കും അങ്ങനെ ജോലി ഉപേക്ഷിച്ച് സിനിമക്ക് വേണ്ടി സിനിമ ഒരു പാഷനായിട്ട് എടുത്ത് അവരുടെ ജീവിത മാർഗമായിട്ട് തന്നെ കണ്ട ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അതാണ് നമുക്ക് ഓരോ അതായത് നമുക്ക് നമ്മുടെ മനസിൽ ഉള്ള ഒരു ആഗ്രഹങ്ങൾ എന്താണോ ആ ഒരു മേഖലയിലേക്ക് അതിപ്പോൾ ഫാഷൻ ആയാലും ഡിസൈനിങ് ആയാലും അഡ്വെർടൈസ്മെൻ്റ് ആയാലും സിനിമയായാലും അതിനു നമ്മുടെ ഉള്ളിൽ അതിനു എത്ര പ്രാധാന്യമുണ്ടോ അത് വെച്ചാണ് അതിൻ്റെ ഔട്ട്പുട്ട് അതായത് നമ്മളിൽ അത് പ്രകടമാകുന്നത് അതുവഴി ഒത്തിരി ഒത്തിരി നമുക്ക് ജീവിതത്തിൽ നേടാൻ സാധിക്കും